കോഴി വളർത്തൽ വസന്ത രോഗം വരാതെയും വസന്ത രോഗം വന്നു കഴിഞ്ഞാൽ അതിനെ സുരക്ഷിതമായിട്ട് എടുക്കാൻ വേണ്ടി മൃഗാശുപത്രി പോകണം മൃഗാശുപത്രി ചെന്നു കോഴിക്ക് കോഴി രോഗവും പിന്നെ കോഴിക്ക് എന്തെങ്കിലും പിന്നെ മഞ്ഞ നിറം ഇത് വെള്ളം നിർത്തി തൂറുവോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും കോഴിയെ നമ്മൾ പിന്നെ സുരക്ഷിതായിട്ട് വളർത്തുക നമുക്ക് മുട്ട കോഴി ഒത്തിരി തരുന്നുണ്ട് അതിൽ നിന്നും നമ്മൾ ഒത്തിരി കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുക്കണം കുഞ്ഞുങ്ങളെ എല്ലാം വിരിയിച്ചെടുത്തതിന് ശേഷം കുഞ്ഞുങ്ങളെ എല്ലാം വിരിയിച്ചെടുത്തതിന് ശേഷം അതിനെ വളർത്തി വലുതാക്കി വലുതാക്കിയിട്ട് അതിനെ നമ്മൾ ആർക്കെങ്കിലും വിൽക്കുന്നു വിറ്റു കഴിഞ്ഞിട്ട് വിറ്റു കഴിഞ്ഞു അതിനെ നമ്മൾ എന്ത് ചെയ്യണം പിന്നെ ആ കോഴി അടയിരിക്കും അടയിരിക്കുമ്പോഴുത്തേക്കും ആ അടയിരിക്കുന്ന കോഴിയെ നമ്മൾ കുഞ്ഞുങ്ങളെ മുട്ട വച്ചു കുഞ്ഞ് പിന്നേ നമ്മൾ കുഞ്ഞുുകളെ വളർത്തണം അത് കഴിഞ്ഞു പിന്നെ ആ കോഴിയുടെ നമുക്ക് ജൈവ വളത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും അതിൻ്റെ കോഴിക്കാരമൊക്കെ നമ്മൾ ജൈവ വളത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോയി പിന്നെ ചെടികൾക്കും റബറ് അങ്ങനെ എല്ലാ എല്ലാ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കും പിന്നെ ഗവൺമെൻറ് നമുക്ക് തരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പഞ്ചായത്ത് വഴിയും കൃഷിഭവൻ വഴിയൊക്കെ നമുക്ക് കോഴി വളർത്താൻ വേണ്ടിയിട്ട് കോഴിക്കൂടും അതിന് വേണ്ട പത്ത് അമ്പത് കോഴിയെ വളർത്തുന്നവർക്ക് അത് അനുസരിച്ചുള്ള കൂട് ഇരുപത്തി അഞ്ച് കോഴിയെ വളർത്തുന്നവർക്ക് അത് അനുസരിച്ചുള്ള കൂട് അങ്ങനെ അവർ നൽകുന്നുണ്ട് അതിൽ നിന്ന് നമ്മൾ കോഴിയെ വളർത്തി സംരക്ഷിച്ചിട്ട് അതിൽ നിന്നും കിട്ടുന്ന മുട്ട നമ്മൾ വിൽക്കണം വിറ്റു കഴിഞ്ഞിട്ട് കോഴിക്ക് വേണ്ട കോഴി തീറ്റയും കോഴിയുടെ ഓരോ കോഴിക്കും അതിൻ്റേതായ പ്രായത്തിൻ്റെ അനുസരിച്ചുള്ള കോഴി തീറ്റ വാങ്ങണം മുട്ടയിടുന്ന കോഴിക്ക് മുട്ട കോഴി തീറ്റ വാങ്ങണം പിന്നെ പിന്നെ അല്ലാതെ കുഞ്ഞു കോഴിയൊക്കെ നമ്മൾ സ്റ്റാർട്ടറെന്ന് പറയും അങ്ങനെ സ്റ്റാർട്ടറിൻ്റെ കോഴി തീറ്റ അങ്ങനെ പല തരത്തിലുള്ള കോഴിത്തീറ്റകളുണ്ട് അതെല്ലാം നമ്മൾ കൊടുത്ത് അതിനെ സുരക്ഷിതമായിട്ട് നമ്മൾ വളർത്തിയെടുക്കണം പിന്നെ ഗവൺമെൻ്റിൻ്റെ ചെയ്യുമെന്ന് വച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് വേണ്ടിയിട്ട് കോഴി വളർത്താൻ വേണ്ടി കോഴിത്തിന് കോഴിക്ക് വേണ്ടിയിട്ടുള്ള കോഴി തീറ്റയും പിന്നെ അതൊക്കെ ആദ്യം തരും പിന്നെ നമ്മൾ തന്നെ കോഴിക്ക് വേണ്ടിയിട്ടുള്ള ഇതെല്ലാം തീറ്റയെല്ലാം കണ്ടുപിടിച്ചു പിന്നെ മേടിച്ചു പിന്നെ പച്ച ഇല പിന്നെ പച്ച ഇല കൊടുക്കണം പിന്നെ കോഴിക്ക് വേണ്ട പിന്നെ കോഴി രോഗം കോഴിക്ക് വേണ്ടിയിട്ടുള്ള വസന്ത രോഗമൊക്കെ വരുമ്പൊഴുത്തേക്കും കോഴിയെ മൃഗാശുപത്രിയിൽ നമ്മൾ നമ്മളെ മൃഗാശുപത്രി ചെന്നു കോഴിക്ക് വേണ്ടിയിട്ടുള്ള മരുന്നുകളെല്ലാം മേടിച്ചു കൊടുക്കും മരുന്നുകളെല്ലാം മേടിച്ചു കൊടുത്തിട്ട് അതിന് ശേഷം പിന്നെ എന്നിട്ടും കോഴി ശരിയാകുന്നില്ലെങ്കിൽ പിന്നെ മൃഗാശുപത്രിയിൽ പോയി നമ്മൾക്ക് ഗവൺമെൻറ്റിൽ നിന്നൊക്കെ അവർ കോഴിയെ കുത്തി വയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ വരും കോഴിയെ കുത്തി വയ്ക്കാൻ വരുമ്പോഴത്തേക്കും കുത്തി വയ്ക്കുന്നു അവർ അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ കോഴിക്കൂടുകളെല്ലാം ഉണ്ടാക്കി ഓരോ കോഴിക്കും താമസിക്കാൻ സൗകര്യത്തിനുള്ള കോഴിക്കൂടുകുകൾ ഉണ്ടാക്കി അതിനെ അതിൽ ഇട്ട് വളർത്തും അതിലിട്ട് വളർത്തി കഴഞ്ഞിട്ട് കോഴിയെ എളുപ്പമെന്ന് നമ്മൾ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ട കോഴിത്തീറ്റകളെല്ലാം മേടിച്ചു നമ്മൾ കൊടുക്കണം അതിൻ്റെ ഓരോ വളർച്ച അനുസരിച്ചുള്ള കോഴിത്തീറ്റയാണ് കൊടുക്കേണ്ടത് പിന്നെ വളർച്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായി ഉണ്ടായി നമ്മൾ കുഞ്ഞിനെ അടവച്ചു വിരിയിച്ചു ഒക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് അതിന് പറ്റുന്ന കോഴിത്തീറ്റ അതിന് കൊടുക്കണം പിന്നെ നമ്മൾ കോഴിക്ക് കഫക്കെട്ട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് കോഴിത്തീറ്റ പ്രൃത്യേകം ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ തൊട്ടടുത്ത് എന്ത് ചെയ്യണം നമ്മൾ കോഴിക്കുള്ള വെള്ളം വച്ചു കൊടുക്കണം കോഴിയ എന്ത് ചെയ്യും കോഴി ആ തീറ്റ തിന്നിട്ട് ആ വെള്ളം കുടിക്കുമ്പോൾ കോഴിയുടെ പിന്നെയുള്ള ആ കഫക്കെട്ട് പോലെയൊക്കെ ഉള്ളതെല്ലാം ഇളകി പൊക്കോളും പിന്നെ അതിൽ നിന്ന് കോഴി വളർത്തുന്നത് നിന്ന് നമുക്ക് ഒത്തിരി ലാഭമേ റ്റെടുക്കാൻ ലാഭം നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ആ ലാഭം പിന്നെ ഒരു കാര്യം ഗവൺമെൻറ് നമുക്ക് കോഴി വളർത്താൻ തന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിറ്റു കഴിഞ്ഞു കോഴിക്കൂട് മാത്രം കാണാൻ പാടില്ല കോഴികളെ നമ്മൾ പിന്നെയും പിന്നെയും വളരുന്നത് അനുസരിച്ചു കോഴി കോഴികളെ വളരുന്ന കോഴിയെ പിന്നെയും പിന്നെയും അടവച്ചു അടവച്ചു അടയാകുന്ന കോഴിക്ക് അടവച്ചു അടവച്ചു കോഴിയെ വളർത്തി ഓരോ വിരിക്ക കോഴിയ പിന്നെ വിരിയിച്ചെടുക്കണം എന്നിട്ട് അതിന് ഓരോ കുഞ്ഞുങ്ങളെ പ്രത്യേകം ഓരോ അറകളാക്കി കുഞ്ഞുങ്ങൾക്ക് തീറ്റ ഇട്ട് കൊടുത്ത് അവിടെയാക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ അതിന് കാക്ക കൊണ്ട് പോകാതെയും പരുന്ത് കൊണ്ടു പോകാതെയും പിന്നെ പാക്കനാനും ഉളനൊന്നും പിടിച്ചു കൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സുരക്ഷ നമ്മൾ ചെയ്യണം എന്നാൽ നമുക്ക് അതുകൊണ്ട് നല്ല ലാഭം ഉണ്ട് കോഴിയെ വളർത്തുന്നത് കൊണ്ട് വളർത്തി കഴിഞ്ഞു പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം പൈസക്കൊക്കെ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ കോഴിയെ പിടിച്ചു കൊടുക്കാം അത് കഴിഞ്ഞു ഇറച്ചിക്കോഴി ഉണ്ട് എറച്ചിക്കോഴി യെ നമ്മൾ വളർത്തിയിട്ട് ഇറച്ചിക്കോഴിയെ ആകുമ്പോഴത്തേനും അതിനെ നമുക്ക് കൊല്ലാൻ വേണ്ടിയിട്ട് ഇല്ല നമുക്ക് കൊന്നു തിന്നാം പൂവൻ കോഴിയെ ആണ് നമുക്ക് വിരിഞ്ഞു വരുന്നതെങ്കിൽ അതിനെ വളർത്തിയിട്ട് പുവൻ കോഴിയെ വിൽക്കുക വിറ്റ് കഴിഞ്ഞിട്ട് പൈസ എടുത്ത് ആ പൈസ എടുത്ത് നമ്മൾ പിന്നെയും കോഴിത്തീറ്റയോ അങ്ങനെ എന്തെങ്കിലും വാങ്ങുക വാങ്ങിയിട്ട് ഇപ്പം കോഴിയ വളർത്തിയിട്ട് പിന്നെയും പിന്നെ മുട്ട വിരിച്ചു അങ്ങനെ എടുക്കുക മുട്ട പിന്നെ വിരിയിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതുകൊണ്ട് നല്ല ലാഭം ഉണ്ട് കോഴിയെ വളർത്തുന്നത് കൊണ്ട് അതുകൊണ്ട് നഷ്ടമൊന്നും വരത്തില്ല പിന്നെ വസന്ത രോഗവും അത ഇതൊക്കെ വരാതെ നമ്മൾ സൂക്ഷിക്കണം കോഴിക്ക് വസന്ത രോഗമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കാലിലൊക്കെ ഒരുമാതിരി തടുപ്പും അങ്ങനെയൊക്കെ ഉണ്ടാാവും അതൊക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള പ്രതിരോധ കുത്തി വെപ്പും പിന്നെ മരുന്നുകളെല്ലാം കൊടുക്കണം കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ കൊടുത്ത് കഴിഞ്ഞു സുഖം സുഖമാവും അല്ലെങ്കിൽ ചിലതൊക്കെ ചത്തു പോവും അപ്പോൾ തന്നെ നമ്മൾ ആ രോഗം വരുന്ന കോഴിയെ എന്ത് ചെയ്യണം പ്രത്യേകം വേറൊരു സ്ഥലത്തേക്ക് മാറ്റണം വേറൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ട് ഒരു സ്ഥലത്തേക്ക് മാറ്റിയിട്ട് പിന്നെ നമ്മൾ അതിന് വേണ്ട പിന്നെ സുരക്ഷിതം എല്ലാം ചെയ്തു കൊടുക്കണം അങ്ങനെ കോഴി വളർത്തൽ കൊണ്ട് അതുപോലെയൊക്കെ നേട്ടങ്ങൾ നമുക്കെടുക്കാം പിന്നെ എന്താണ് നമുക്ക് ആർക്കെങ്കിലും വേണമങ്കിൽ ഇത് കോഴിയെ കൊടുത്തിട്ട് വിരിയിച്ചെടുത്ത് അതിന് വേണ്ട ഇതെല്ലാം ചെയ്യാം പിന്നെ എന്താണെന്ന് വച്ചാൽ